ഇപ്പം നമ്മളെ സോഷ്യൽ കൾച്ചറൽ ഇഷ്യൂസ് എന്നു പറഞ്ഞാൽ സിറിയയിൽ സിറിയ അല്ല യമനിൽ നമ്മളൊരു നർസ് പുള്ളികാരിയുടെ പേരെന്നു പറഞ്ഞാൽ റിയ എന്നു പറഞ്ഞൊരു നർസ് പെട്ടുകിടക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഉള്ളൊരു കേസിൻ്റെ പേരിലാണ് അവർക്കിപ്പം വധശിക്ഷ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് അവിടത്തെ സർക്കാർ അതായത് യമനിലെ നിയമപ്രകാരം നമ്മൾ അവിടെയൊരു ബിസിനസ്സ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടുള്ള യമൻ രാജ്യക്കാരനോ രാജ്യക്കാരിയോ ആയിട്ടുള്ള ഒരാളെ നമ്മൾ അവിടെ പാർട്ണറായി നമ്മൾ ബിസിനസ്സിൽ വെക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ഈ നർസ് അവിടെയൊരു ക്ലിനിക് തുടങ്ങുന്ന പ്ലാൻ ഇട്ടു പുള്ളികാരിയും പുള്ളികാരിയുടെ ഭർത്താവും ചേർന്നാണ് ഈ സംരംഭം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചർച്ചചെയ്തു തീരുമാനിച്ചത് എന്നിട്ട് അവിടുത്തെ യമനിലെ ഒരു യുവാവിനെ ഇവരുടെ ബിസിനസ്സ് പാർട്ണറായി ഇവരു വെച്ചിട്ടുണ്ടാരുന്നു ആ അദ്ദേഹം ആൾ അവിടുത്തെ ഒരു വ്യാപാരിയായിരുന്നു പുള്ളി ഈ ബിസിനസ്സ് നടന്നുകൊണ്ടിരിക്കുകതന്നെ ഇവരിൽനിന്നു വളരെയധികം കാര്യങ്ങൾ പറഞ്ഞ് പൈസ വെട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴൊക്കെ ആയപ്പോഴേക്കും യമനിലെ സ്ഥിതികൾ കുറച്ചുകൂടി ഗുരുതരമായി അവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ സിവിൽ വാർ തുടങ്ങിയിരുന്നു അപ്പം ഈ സിവിൽ വാർ കാരണം അവിടെ ഇവരുദ്ദേശിച്ചത്രയും വരുമാനം കച്ചവടം വരുമാനം ഈ ക്ലിനിക്കിന് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റാതെ പറ്റുന്നില്ലായിരുന്നു അപ്പം ഈ ഈ ഇവരുടെ യമനിൽനിന്ന് യമനിയായിട്ടുള്ളൊരു പാർട്ണറുണ്ടെന്നു പറഞ്ഞാൽ അദ്ദേഹം ഇവരിൽനിന്ന് എപ്പോഴും കാഷ് വേണമെന്നു പറഞ്ഞു ഇവരെ ഭീഷണിപ്പെടുത്തുക ഇവരുടെ കയ്യിൽനിന്ന് മേടിച്ചുകൊണ്ടിരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇദ്ദേഹം ഈ ഈ സ്ത്രീയുടെ സ്ത്രീയുടെ പാസ്പോർട്ടും മറ്റു രേഖകളുമൊക്കെ ഈ ബിസിനസ്സ് തുടങ്ങുന്നതിന് മുന്നെയായിട്ടുതന്നെ ഇയാളുടെ കൈ കൈവശം മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ ഈ രണ്ടായിരത്തി പതിനാറ് പതിനേഴായപ്പം ഇത് ഒരു വിധത്തിലും മുന്നോട്ടു പോകത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പം ഈ സ്ത്രീ ഇവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ തിരിച്ചുമേടിച്ച് രാജ്യംവിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻവേണ്ടി തീരുമാനിച്ചിരുന്നു പക്ഷേ ഈ ഈ ഇദ്ദേഹം ഇവരെ ഇവിടെനിന്ന് വിടാൻ തയ്യാറാവുന്നില്ലായിരുന്നു ഇദ്ദേഹം ഇവരുടെ ഭർത്താവാണെന്നു പറഞ്ഞ് പലയിടത്തുനിന്നും പലരുടേയും കയ്യിൽനിന്ന് കടം മേടിച്ചു വെച്ചിട്ടുണ്ട് അതിൽനിന്ന് പക്ഷേ ഈ യുവതിയാണെങ്കിൽ കേരളത്തിലുള്ള ഒരാളുമായിട്ട് നേരത്തെ വിവാഹം കഴിഞ്ഞിരുന്നു അപ്പം ഇവർ ഇവർക്ക് അവസാനം അവിടെനിന്നു വരാൻവേണ്ടി ഒരു രക്ഷയുമില്ലെന്ന് തോന്നിയപ്പോൾ ഇവർ ചെയ്തതെന്നു പറഞ്ഞാൽ എന്തോ ബോധംകെടാനുള്ള ഒരു മരുന്ന് ഈ ഇയാളുടെ ദേഹത്ത് കുത്തിവെക്കുകയോ ഇയാൾക്ക് കൊടുക്കുകയോ ചെയ്തിട്ട് ഇയാളുടെ കയ്യിൽനിന്ന് ഈ പാസ്പോർട്ടും ഈ മറ്റു രേഖകളുമൊക്കെ കൈവശമാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമം നടത്താൻ ഇരിക്കുകയായിരുന്നു പക്ഷേ ഈ കൊടുത്ത മരുന്നിൻ്റെ ഡോസ് ഇവർ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടി കൂടിപ്പോയി അതിൻ്റെ ആ ഡോസ് കൂടിയതിൻ്റെ കൂടിയതുകൊണ്ട് ഈ ഇയാൾക്ക് ഇയാൾ മരണപ്പെടുകയുണ്ടായി ഈ ഡോസ് കൂടിയ മരുന്ന് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കുത്തിവെച്ച് അയാൾ മരിച്ചതിനുശേഷം യമൻ സർക്കാരിൽ യമനിലുള്ള ആൾക്കാർ ഇവർക്കെതിരെ കേസ് കൊടുത്തു എന്നിട്ട് സർക്കാർ സഹിതം എല്ലാവരും അവരുടെ ഒരു പൗരനെ മറ്റുരാജ്യത്തുനിന്ന ആൾ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ കണ്ട് യമൻ സർക്കാർ യമനിലെ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു പക്ഷെ ആ വധശിക്ഷയിൽനിന്ന് ഇവരെ രക്ഷിക്കാൻവേണ്ടി നമ്മുടെ ഭാരതസർക്കാരും വളരെ അധികം പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ എന്താകുമെന്നുള്ളത് അറിയത്തില്ല ഈ ഇപ്പോഴും ഇവർ യമനിലെ ജയിലിൽ കഴിയുകയാണെന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം നമ്മുടെ രാജ്യത്തിൽനിന്ന് പറ്റുന്ന എല്ലാ സഹായവും ചെയ്ത് ഇവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ ഇതുവരെയായിട്ടും ഒരു തീരുമാനം ആയിട്ടില്ല പക്ഷേ പറ്റുന്ന എല്ലാംതന്നെ നമ്മുടെ രാജ്യം അവർക്കുവേണ്ടി ചെയ്തു അവരെ തിരിച്ചു നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോഡിജി വരെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് ബാക്കി വേണ്ട ഒഫീഷ്യൽസ് എല്ലാവരും അതിൻ്റെ അകത്ത് എടപെട്ട് ഇവരെ എങ്ങനേയും തൂക്കുകയറിൽനിന്ന് രക്ഷിച്ച് തിരിച്ച് ഇവരുടെ രാജ്യത്തേക്ക് ഇവരുടെ രാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അവരും ഒരു ശുഭപ്രതീക്ഷയിൽ ഇരിക്കുകയാണ് പക്ഷേ ഇതെങ്ങനെ പോകുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു തീരുമാനവുമില്ല